ഇന്നത്തെ ഒരു സാഹചര്യത്തെ നമ്മൾക്ക് കൂടുതലും ഓൺലൈനായിട്ടുള്ള പരസ്യങ്ങളാണ് എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ടി വിയിലൂടെയും അല്ലെങ്കിൽ നമ്മള് ഇൻ്റർനെറ്റിലൂടെയും കാണപ്പെടുന്ന പരസ്യങ്ങളാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് പിന്നെ കൂടുതലും പരസ്യങ്ങൾ പ്രശസ്തി അല്ലെങ്കിൽ പരസ്യങ്ങൾ ജനശ്രദ്ധ നേടുന്നത് അത് പരസ്യം അവതരിപ്പിക്കുന്ന ആളുകളിലൂടെയാണ് ഉദ്ദേശിക്കുന്നത് സിനിമ നടന്മാര് നടികൾ അല്ലെങ്കിൽ പ്രശസ്തരായിട്ടുള്ള പലരും ചെയ്യുമ്പോഴാണ് അത് എല്ലാവരും ശ്രദ്ധിക്കുന്നത് അങ്ങനെ ഇപ്പോൾ കുട്ടികളെയൊക്കെ ആകർഷിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ചോക്ലേറ്റിൻ്റെയൊക്കെ പരസ്യം ആയിക്കോട്ടെ അത് കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലാണെങ്കിൽ അത് ഒരുപാട് പേര് അത് ശ്രദ്ധിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഒരുപാട് പേര് അത് ശ്രദ്ധിക്കുന്നു അങ്ങനെ ഒരുപാട് സർഗാത്മകമായ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഇപ്പോഴത്തെ പരസ്യങ്ങളെല്ലാം ഇറങ്ങാറുള്ളത് നമ്മളൊരു ഉൽപ്പന്നം പരസ്യം കണ്ടിട്ട് നമ്മൾ വാങ്ങാൻ പോവുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ അത്യാവശ്യം നമ്മൾ അവിടെ നമ്മളവിടെ മണ്ടന്മാരല്ലെങ്കിൽ നമ്മള് വിഢികളാവുകയാണ് കാരണം ഒരിക്കലും ആ ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്ട് നമ്മൾ പരസ്യത്തിൽ കണ്ടപോലെ ആയിരിക്കില്ല അത് വാങ്ങാൻ പോണ സമയത്ത് അതിന് ആ പറഞ്ഞ ഗുണങ്ങളൊന്നും ഉണ്ടായിരിക്കണമെന്ന് ഇല്ല അപ്പോ പരസ്യത്തിലെല്ലാം എഴുതി കാണിക്കാറുണ്ട് ഇതുപോലെ ഉള്ളതെല്ലാം എന്താ പറയുക ഇതുപോലെ ഒന്നും സത്യമല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കാറുണ്ട് അങ്ങനെ പരസ്യ പരസ്യങ്ങൾ ഒരുപാട് ഇന്നത്തെക്കാലത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരുപാട് പ്രശസ്തിയേറുന്ന ഒരു കാര്യമാണ് എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു പരസ്യം എന്ന് പറയുമ്പോൾ തീർച്ചയായും മറ്റ് തീർച്ചയായും സോപ്പിൻ്റെ പരസ്യം അത് ഒരുപാട് ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരുപാട് പല വിധത്തിലുള്ള സോപ്പുകള് കണ്ടിട്ടുണ്ട് പല രീതിയില് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു പരസ്യം ചെയ്യുന്നെങ്കിൽ അതിന് ഒരു കണ്ടന്റ് വേണം നമ്മള് ആരോ സോപ്പിനെ കുറിച്ചുള്ള ആ ഒരു നമ്മൾ കാര്യങ്ങൾ പറയണ സമയത്ത് വെറുതെ പറഞ്ഞാൽ പോര ഒരു കണ്ടന്റ് വേണം അല്ലെങ്കിൽ അതിനൊരു എൻഡിങ്ങും അല്ലെങ്കിൽ അതിനൊരു തുടക്കവും ഒരു ഒടുക്കവും ഉണ്ടാകുമെന്ന് പറഞ്ഞ പോലെ പല രീതിയില് ക്രിയാത്മകമായിട്ട് എങ്ങനെ ചെയ്യും അതൊക്കെയാണ് പരസ്യത്തെ വിജയിപ്പിക്കണത് അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ഇന്ദുലേഖയുടെ പരസ്യം ഞാൻ കുട്ടിക്കാലം തൊട്ടേ കാണാൻ തുടങ്ങിയ പരസ്യമാണ് അപ്പോൾ നമ്മളെ പല രീതിയിൽ ചിന്തിപ്പിക്കുന്ന ഒരു പരസ്യമാണ് അങ്ങനെ അത് പിന്നീട് കുറേ പരസ്യങ്ങൾ അതുപോലെ കുറേ ഉണ്ട് നമ്മള് ചില പരസ്യങ്ങൾ കാണുന്ന സമയത്ത് അത് അതും ആ പരസ്യം ചെയ്യുന്ന ആ ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്ടായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പരസ്യങ്ങളും കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് രസകരമായ കാര്യങ്ങൾ പരസ്യങ്ങളിൽ ഉണ്ട്